ഇന്നത്തെ സമൂഹമാദ്ധ്യമങ്ങൽ എടുക്കുവാണെന്ന് ഉണ്ടെങ്കിൽ എല്ലാവരും വാർത്തയിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടീട്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആകാൻ വേണ്ടീട്ട് നോക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ വാർത്താകാരാങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ സ്വീകാര്യത തീരെ പരിഗണിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് പലപ്പോഴും വ്യാജമായ വാർത്തകൾ ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഓൺളൈനി വരുന്നത് പലതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് കണ്ടൻററ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് എല്ലാരെയും സംമ്പന്ധിച്ച് അതുപോലെ തന്നെ ഒരു ന്യൂസ്സൊണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ന്യൂസ് ചാനൽനേ സംമ്പന്ധിച്ച് അവർക്ക് ഏറ്റോം വിലപ്പെട്ട ഒരു കാര്യമാണ് അതായത് അവരുടെ ഒരു അവർക്ക് കൂടുതൽ വൈറലാകാൻ പറ്റുക എന്ന് പറയുന്നതും ഈ പറയുന്ന വാർത്തകൾ കൊണ്ട് തന്നെയാണ് വാർത്താ താരങ്ങളുമായിട്ടുള്ള വിഷയം വരുമ്പോൾ സ്വീകാര്യത വരാത്തതിന് വേറെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് പലരും ഇതിനെ അത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു കാരണം ഉണ്ട് അതായത് വീഡ്യോ വയറലാകാൻ വേണ്ടിട്ട് അവരടേപ്പറ്റി കൂടുതൽ ചർച്ചകൾ വരാൻ വേണ്ടീട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അങ്ങനത്തെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് പലപ്പോഴും സെലിബ്രിറ്റീസിനേ ഒത്തിരി ആരാധന തോന്നുവർ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത് സത്യമാണോ മിഥ്യയാണോന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് അതിനെ വിശ്വസിക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പം അതിനൊരു സ്വീകാര്യത കുറഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട് പിന്നെ ഒത്തിരി ന്യൂസ്സ്കൾ ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട് നമുക്ക് പലതും വിശ്വസിക്കാൻ പറ്റത്തില്ല വാർത്താ താരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവരെ ഒക്കെ അതായത് ഇവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ഒക്കെ നമ്മൾ വെറുതെ അങ്ങ് തെറ്റിദ്ധരിച്ച് കൂട്ടുവാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ പോലെ ആകാം മെച്ചപ്പെടുത്താം അവരെ നമ്മൾ റോൾ മോഡലാക്കി മാറ്റുവൊക്കെയാണ് അപ്പം അതിൻറ്റെ സ്വീകാര്യത എന്ന് പറയുന്നത് നമ്മൾ പരിഗണിക്കാതെ ഇരിക്കുന്നത് നമ്മുടെ ഒരു സമൂഹജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പം അതിനെ പറ്റിയുള്ള കൂടുതൽ വിഷയങ്ങളിൽ സ്വീകാര്യത പരിഗണിക്കാതെ വരുന്നും ഉണ്ട്